ആ ആ ഞങ്ങൾ ഒരു ഏഴ് പേര് വരും ഏഴ് വണ്ടി നമ്മള് അറേഞ്ച് ചെയ്തിട്ടില്ല നിങ്ങളത് അറേഞ്ച് ചെയ്ത് തരുമോ ആ മതി മതി ഓ ഓ ഓ ഓ അവിടെ അവിടെ ഈ പിന്നെ അമ്പലങ്ങളൊക്കെ ഉണ്ടോ അവിടെ കാണാനൊക്ക ഓ ഓ ഓ ആ ആ കേട്ടിട്ടുണ്ട് ആ ആ ആ ആ ആ കോവളം ആ ആ ആ ആ അപ്പോൾ താമസ സൗകര്യം എന്താണ് അ ആ ആ ആ അപ്പോൾ അതിന്റെ റേറ്റ് ഒക്കെ ആ ആ

ആയിരത്തിയഞ്ഞൂറ്

ആ ഹാ

രണ്ടായിരത്തിയഞ്ഞൂറ് രൂപയ്ക്കകത്താണ് വരണ്ടത് ആ അപ്പം ആ

ആ ആ വണ്ടി വാടക അപ്പം നമ്മള് കൊടുത്തോളാം നമ്മള് അവരുമായിട്ട് സംസാരിച്ച് അത് നമ്മള് അവരുമായിട്ട് ക്ലിയർ ചെയ്തോളാം ഓ പറയാം പറയാം ഓ വാട്സ്ആപ്പ് ഇൽ സെ ൻ്റെ ചെയ്താൽ മതി ഓ ഓക്കെ ഓക്കെ